ഹലോ ഞാൻ അവിടെ നിന്ന് രണ്ടു ദിവസം മുൻപേ കുറച്ച് സാധനങ്ങൾ ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ എനിക്കെന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുള്ളിക്കാരൻ്റെ മര്യാദയില്ലായ്മ ഒന്നു പറയാൻ വേണ്ടിയിട്ട് വിളിച്ചയായിരുന്നു ആ തീരെ മര്യാദയില്ലാണ്ടാണ് അയാൾ പെരുമാറിയത് ആ ഡെലിവറി ചെയ്യുന്ന വ്യക്തി തീരെ മര്യാദയില്ലാണ്ടാണ് പെരുമാറിയത് അതൊന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം വിളിച്ചത് കാരണമെന്തെന്നു വെച്ച് കഴിഞ്ഞാൽ കമ്പനിയോടല്ലേ നമുക്ക് പരാതിപ്പെടാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുകയുള്ളു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം വിളിച്ചത് അതെ അതെ തീരെ മര്യാദയില്ലാണ്ടാണ് പെരുമാറിയത് എനിക്കത് തീരെ ഇഷ്ടപെട്ടിട്ടില്ല കാരണം നമ്മൾ ഞാനിപ്പോൾ ഒരു ആ എത്രയാ അറുപത് വയസ്സിന് മേലെയുള്ള ഒരു ആളാണ് അപ്പോൾ നമ്മളോടൊക്കെ ഇങ്ങനെ പെരുമാറുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കിടപ്പിലായ ഒരു വൃക്തി എന്തെങ്കിലും സാധനം ഓഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അവർക്കും ഭയങ്കര രീതിയിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നിങ്ങൾ ഒന്ന് പറഞ്ഞ് അതൊന്ന് മനസ്സിലാക്കുകയാണെ നല്ലതായിരുന്നു പുള്ളീനെ ചീത്ത പറയാനോ ജോലിയിൽ നിന്ന് പിരിച്ചു വിടാനോ ഒന്നും നിൽക്കണ്ട ഞാനൊന്നു പറഞ്ഞു ജസ്റ്റ് പറഞ്ഞുവെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് സംസാരിച്ച് ഒന്ന് റെഡിയാക്കി എടുക്ക് പുള്ളിയെ ആ ശരി എന്നാൽ